പോലീസ് സ്റ്റേഷൻ അല്ലേ ആ അതെ അതെ ആ പോലീസ് സ്റ്റേഷൻ അല്ലേ ആ സാറേ ഞാൻ പിന്നെ കാപ്പാട് ബീച്ചിൽ വന്നതായിരുന്നേ ഇപ്പം എൻ്റെ ബാഗ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഫോൺ മാത്രമേ കയ്യിലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വാലറ്റ് ഒക്കെ ബാഗിന്റെ ഉള്ളിലാണ് ഇപ്പം ബാഗ് മിസ്സിങ്ങ് ആണ് ആ അതിൽ കുറച്ച് ക്യാഷും പിന്നെ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ

ഇല്ല സാറേ ആരും അടുത്ത് വന്ന് ഇരുന്നിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഇതാക്കുവായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ബാഗ് സൈഡിൽ തന്നെയായിരുന്നു ഫാമിലി ആയിട്ട് വന്നതാണ്

ഇല്ല ഇല്ല ഞാൻ പിന്നെ ഇട്ട് ഷോൾഡറിൽ ഇടുന്ന വൺ സൈഡ് ബാഗ് ആണ് അപ്പം ഇരുന്നപ്പം സൈഡിൽ ബാഗ് വെച്ചിട്ട് ഫോൺ മാത്രം കയ്യിൽ എടുത്ത് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഫോൺ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ബാഗിൽ തന്നെ വെച്ചു മിസ്സ് ആയിപ്പോയേനെ

അടുത്ത് ആരോ വന്നൊ എന്നറിയില്ല എല്ലാവരും ബീച്ച് ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമല്ലോ സാറേ

ഇല്ല സാറേ അങ്ങനെയൊന്നും തോന്നിയില്ല കാരണം നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല കാരണം ന ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞ് ഇരുന്ന് പിന്നെ കുട്ടികളല്ലേ ബാഗിൽ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊച്ച് വെള്ളം ചോദിച്ചപ്പം മോൾ വെള്ളം ചോദിച്ചപ്പം എടുക്കാൻ നേരത്താണ് ബാഗ് മിസ്സിങ്ങ് ആണെന്നുതന്നെ മനസ്സിലാവുന്നത് കാരണം അത്രയും അടുത്ത് വെച്ച ബാഗ് ആണ് അതാണ് നമ്മൾ അത്രയും ഇതാക്കാതെ നിന്നത്

ഷമി അരുൺ ആലിയിൽ ഹൗസ് മുണ്ടയ്ക്കൽ പി ഒ കൂത്താട്ട്പറമ്പ് കുന്ദമംഗലം കുന്നമംഗലം കേട്ടോ ഓക്കേ സാറേ ഒന്ന് കാരണം ലൈസെൻസും എ ടി എം ഒക്കെ അതിനകത്ത് ആണ് ഉള്ളത് ഒന്ന് നോക്കുവായിരുന്നെങ്കിൽ അതിൽ ഓക്കേ സാറേ ഒന്ന് വിളിക്കൂ ഞാൻ നാളെ വരാം എന്നാൽ അങ്ങോട്ടേക്ക് ഓക്കെ സാറേ ഓക്കെ സാർ താങ്ക് യൂ